ചെറുകിട ബിസിനസ്സ് എന്നു പറയുമ്പോൾ ഞാൻ ഒരു പച്ചക്കറി സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു വീട്ടിലിരിക്കണ ടൈമിൽ പോയിട്ട് ഇട്ടതാണ് തുടങ്ങിയൊരു ചെറുകിട സ്ഥാപനം ആയിരുന്നു അത് അപ്പോൾ പച്ചക്കറി നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയായിരുന്നു ഇപ്പോൾ ടെക്നോളജി വളർന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അപ്ലിക്കേഷൻ വഴി ആണ് നമ്മൾ വീടുകളിലൊക്കെ എത്തിച്ചത് അപ്പോൾ പുറത്തിറങ്ങാൻ ലോക്ക് ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരപ്ലിക്കേഷൻ ഉണ്ടാക്കി ഈ ടെക്നോളജി വളർന്നു വളർന്നതുകൊണ്ടു തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് അത് യൂസ് ചെയ്യാനും എല്ലാം വളരെ എളുപ്പമാണ് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് എല്ലാർക്കും ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടു തന്നെ അപ്ലിക്കേഷനിലൂടെ ആണ് എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനനുസരിച്ച് എല്ലാം വീട്ടിൽ എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റണുണ്ട് അത് ടെക്നോളജി വളർന്നതുകൊണ്ടു തന്നെ വലിയൊരു ഉപകാരമായിരുന്നു ആ സംഭവം അത് ബിസിനസ്സിനെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെത്തന്നെ ഇപ്പോൾ നമ്മൾ പൈസ എടപാടുകൾ നടത്തുമ്പോഴും നമ്മളധികം പൈസ കൈകൊണ്ട് നമ്മൾ പൈസ കൊടുക്കലും വാങ്ങലൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ് ബേങ്കിലോട്ട് അയക്കാൻ പറ്റുന്നപോലെ ക്യു ആർ കോഡ് വഴിയും അതേപോലെ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള അപ്ലിക്കേഷൻ വഴി ഒക്കെ പെട്ടെന്ന് അയക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അധികം എളുപ്പമായി കിട്ടി പൈസ കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല അത് എല്ലാവർക്കും അത് വളരെ ഉപകരം ഉള്ള ഒന്നായി നമ്മളെ ഈ ടെക്നോളജി ഒക്കെ വളർന്നതുകൊണ്ട് തന്നെ ഇതുതന്നെ ബിസിനസ്സും പെട്ടെന്ന് വളരാൻ അതു സ്വാധീനിച്ചു നന്നായിട്ട്